ആ എടി സിനി ഞാനേ ഞാനാ ബീനയാണ് ഞാൻ വിളിച്ചത് എന്നാന്ന് പറയട്ടെ ഞങ്ങളൊരു യാത്രയായിരുന്നപ്പം ഞങ്ങൾക്കൊന്ന് ആഹാരം കഴിക്കണം ഇപ്പം നമ്മുടെ ഈ കാന്താരി എങ്ങനുണ്ട് റെ റെസ്റ്റോറൻറ്റ് നല്ലതാണോ നല്ല ഫുഡൊക്കെയാണോ അവിടുത്തെ ആ അവിടെയൊന്ന് കയറി കഴിക്കാമെന്നെങ്ങാണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ലതാണല്ലോല്ലെ ഇപ്പം എല്ലായിടത്തും ഈ ഇതല്ലേ ഈ ഫുഡ് ഇൻഫെക്ഷായത് കൊണ്ട് നമുക്ക് കയറി കഴിക്കാനുവായിട്ടൊരു ബുദ്ധിമുട്ടാണ് ആ കാന്താരി നല്ലതാണോ ആ നല്ല വൃത്തിയൊക്കെ ആണോ എങ്ങനാണ് അവിടെ ബിരിയാണീടെ ഒക്കെ വിലയൊക്കെ ആ അത്രേ ഉള്ളോ ആ അത് ശരി ആ കയറാന്നെങ്ങാണ്ടായിരുന്നു നീ ഇപ്പം എവിടാണ് നീ വരുന്നോ വരുന്നെങ്കിൽ ബാ നമുക്ക് അവിടെ കയറി കഴിച്ച് കുടിച്ചക്കെ പോവാം നീ കയറിയതായിരുന്നോ എന്ന് കഴിഞ്ഞ ആഴ്ച്ചേലൊ ആ ഹാ അപ്പം എങ്ങനെ എന്നായിരുന്നു മേടിച്ചത് പൊറോട്ടായും ചില്ലി ചിക്കനോ ആ ആ പൊറോട്ടായും ചില്ലി ചിക്കനും നല്ല ഇതാണോ സൂപ്പറാല്ലേ ആ എന്നാൽ ഉച്ച സമയമായത് കൊണ്ടാ പൊറോട്ട എങ്ങനെ തിന്നൂന്നോർത്ത് ഇരിക്കുവാണ് കാന്താരി അല്ലേലും കേട്ടിട്ടുണ്ട് കാന്താരി നല്ല റെസ്റ്റോറൻറ്റാണെന്നും കഴിക്കാനക്കെ നല്ല ബെറ്ററാന്നക്കെ കേട്ടിട്ടുണ്ട് ആ പിന്നെ ബിരിയാണി എങ്ങനുണ്ട് ബിരിയാണി കുഴപ്പോന്നുമില്ലല്ലേ എന്നാൽ ബിരിയാണി മേടിച്ച് കഴിക്കാം പിള്ളേരും ഉണ്ട് പിള്ളേരിവിടെ കയറാന്നും കൊണ്ടാ കാന്താരിയെപ്പറ്റിയൊരു നല്ല അഭിപ്രായമുള്ള റെസ്റ്റോറൻറ്റാണ് നമ്മുടെ അർക്കാഡിയായും വലിയ കുഴപ്പമില്ല അർക്കാഡിയായിലെ ഫുഡൊക്കെ നല്ല ഫുഡാ ആ നല്ല സൂപ്പറാ നല്ല ഇറച്ചിയക്കാണ് നമ്മൾ ഊണിൻ്റെ കൂടെ ആണേലും പായസോം കാര്യങ്ങളും ഒക്കെയുണ്ട് ഊണാണെങ്കിൽ ബിരിയാണിക്ക് ഇല്ല ഊണാണെങ്കിൽ കാന്താരി കയറീട്ടില്ല ഇനി ഇപ്പം നീ പറഞ്ഞ കൊണ്ടാണ് കാന്താരീലൊന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ആ ആ അവർക്ക് കഴിപ്പ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഐസ് ക്രീമും അതും ഇതുവൊക്കെ അവർ മേടിച്ച് കഴിച്ച് പിള്ളേർ പിള്ളേർക്കതക്കെ വേണം അല്ലെ അവർ സമ്മതിക്കത്തില്ല പൊറോട്ട കഴിക്കാൻ പൊറോട്ട ഉച്ചയായ കൊണ്ട് പിന്നെ അല്ലേ എനിക്ക് ഊണാണ് ഇഷ്ടം എനിക്കെവിടെ കയറിയാലും ഊണാണ് ഇഷ്ടവേ ആ എപ്പോഴും ഉണ്ണുന്നതല്ലെ എന്നാൽ ഇന്ന് ബിരിയാണി മേടിച്ച് കഴിക്കാം ഇത് കഴിച്ചിട്ട് പോവാം വീട്ടിൽ പോയി കിടന്നുറങ്ങാം